കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുടുംബങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണ് സഹായിക്കുന്നേന്ന് ചോദിച്ചാൽ ഇപ്പോൾ സർക്കാരുകളൊരുപാട് കാര്യങ്ങളിറക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടായാലും അവർക്ക് ഇപ്പോള് അംഗൻവാടികളുണ്ട് അംഗൻവാടികളാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുഞ്ഞുങ്ങളെ അവര് പത്ത് മണി മുതല് മൂന്ന് അഞ്ച് മണി വരെ നോക്കുന്നുണ്ട് മുട്ടയുണ്ട് പാലുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട് പിന്നെ ഉപ്പുമാവ് കൊടുക്കുന്നുണ്ട് ഇപ്പൊരു ദിവസം അംഗൻവാടിയിപ്പോള് എന്തെങ്കിലും കാരണത്താൽ അഞ്ച് ദിവസത്തേക്ക് പഠിത്തമില്ലെങ്കിലവര് ഇതെല്ലാം ചെയ്യുന്ന സാധനങ്ങൾ വീട്ടില് കൊണ്ടുക്കൊടുക്കും പിന്ന കൗമാര പ്രായക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ എന്താ അമൃതം പൊടി അങ്ങനത്തെ കാര്യങ്ങളുണ്ട് മൂന്ന് വയസ്സ് വരെയുള്ള അത് തന്നെ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ജനിച്ചോടം മുതല് മൂന്ന് വയസ്സ് വരെ പിള്ളേർക്ക് അമൃതം പൊടിയുണ്ട് കൗമാര പ്രായക്കാരായ പിള്ളേർക്ക് ഗോതമ്പ് റാഗി അങ്ങനെ എണ്ണ ശർക്കര അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഗർഭിണികൾക്കുണ്ട് അംഗൻവാടി മുഖേന ഇപ്പോള് ഒരുപാട് സർക്കാർ സ്കൂള് സർക്കാർ സ്കൂളുകളുണ്ട് പിന്നെ എന്താണ് ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കില് വീട്ടു ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരാണങ്കില് കുട്ടികളെ നോക്കാൻ പറ്റാത്ത സാഹചര്യം വരുവാണെന്നുണ്ടെങ്കില് അങ്ങനത്തൊള്ള കുട്ടികളെ നോക്കാനായിട്ടിപ്പോള് സർക്കാരും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് അപ്പോള് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുക എന്ന് പറയുന്നത് അത് സാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോഴത്തെ സർക്കാര് നമുക്ക് വേണ്ടി ചെയ്തുതരുന്നുണ്ട് സർക്കാർ സ്കൂളുകളുണ്ട് സർക്കാർ സ്കൂളുകളിലാകുമ്പോള് അവർക്ക് ഉച്ചക്കഞ്ഞി വിതരണമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിപ്പോള് സർക്കാരുകള് ചെയ്തു തരുന്നുണ്ട്